ഇപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ബൈക്കിങ് അനുഭവം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാരണമെന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ബൈക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണമെന്തെന്ന് വച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും പലരീതിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക പിന്നെ പല രീതിയിലുള്ള അനുഭവങ്ങൾ അതായത് ബൈക്കിങ് പോകുമ്പോൾ പല രീതിയിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ബൈക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ പെട്രോൾ തീർന്നു പോവുക ടയർ പഞ്ചർ ആവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും കാരണം എന്തെന്ന് വച്ചുകഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ പെട്രോൾ പമ്പില്ലാത്ത സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളുമൊക്കെ വരും ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ട് നേരിടുന്നതും പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു കാരണം ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് നമ്മള് എങ്ങനെ അവിടെ വരെ ഒക്കെ എത്തുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന പല രീതിയിലുള്ള അവസ്ഥകളും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വന്നത്